എനിക്കൊരു പെങ്ങള് മാത്രമാണുള്ളത് അവളുടെ സ്വഭാവം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്തെങ്കിലും വാശി പിടിച്ചുകഴിഞ്ഞാൽ അവൾക്കത് കിട്ടണം കിട്ടാണ്ട് അവൾ ഒരടി മുന്നോട്ടുപോകില്ല ഇനി എവിടെയെങ്കിലും ഞങ്ങളിപ്പോൾ വിളിച്ച് കഴിഞ്ഞാല് അവള് വരുവാന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും വരുന്നില്ലായെന്നുണ്ടെങ്കിൽ നമ്മള് വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നത് വെറുതെ നമ്മള് പൊട്ടന്മാരാക്കാന്നല്ലാണ്ട് അവള് വരുന്ന ലക്ഷണമൊന്നും കാണില്ല കാരണം എന്താന്ന് വച്ചുകഴിഞ്ഞാല് അവൾക്ക് ഒരു വാശിയുണ്ട് അവള് വരില്ലാന്ന് പറഞ്ഞ് പിന്നേയും പിന്നേയും നമ്മള് നിർബന്ധിക്കല്ലാണ്ട് അവള് വരില്ല എത്ര കാലുപിടിച്ചാലും അവള് വരില്ല അതാണ് അവളുടെ ഏറ്റവും വലിയൊരു വ്യത്യാസം എന്നുപറഞ്ഞുകഴിഞ്ഞാല് പക്ഷേ നമ്മളൊക്കെ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് എന്തെങ്കിലും കാര്യം ഒരു ഒന്നോ രണ്ടോ പേര് കെഞ്ചി കെഞ്ചി പറഞ്ഞുകഴിഞ്ഞാല് അവരെ വിഷമിപ്പിക്കണ്ടല്ലോ എന്നോർത്തിട്ട് നമ്മള് വരും പക്ഷേ ഇവൾ അങ്ങനെയല്ല ഇവൾക്കിപ്പോൾ ഒരു സാധനം വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നിർബന്ധിച്ച് കൊടുത്താലും അവള് തിന്നില്ല അതാണ് ഇവളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ മെയിനായിട്ട് ഈ പ്രത്യേകതയാണുള്ളത് ഇതാണവളുടെ സ്വഭാവവും ഇതില് എന്താ പറയുക ആൾക്കാര് നമ്മ അവളായി അവൾടെയൊരു ലോകമായി അങ്ങനത്തെ ഒരു ടീമാണ് അവള് അതായത് ബാക്കിയുള്ളോരുടെ കാര്യത്തിലൊന്നും വലിയ കാര്യായിട്ട് ഇടപെടാണ്ട് അവളുടെ ലോകത്തേക്കു നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലായത് അവളെക്കുറിച്ച് ഇതാണ് മെയിനായിട്ടുള്ള ഒരു വ്യത്യാസം എന്നു പറയാം